കാർഷിക ഉൽപ്പന്നങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഇടുക്കീക്കാരെ സംബന്ധിച്ച് അതിന് ഒന്നിനും വില ഇല്ല അത് പുറത്തെന്ന് കയറ്റുമതി ചെയ്യുന്നത് കാരണം ഞങ്ങൾ ചെയ്യുന്ന ജോ കൃഷികൾക്ക് ഒന്നും വിലയില്ലാതെ ഒത്തിരി നേരം മനുഷ്യർ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് പറയുവാണ് എങ്കിൽ പുറത്തെന്ന് ഉള്ള കയറ്റുമതി കുറച്ച് കൊണ്ട് ഇവിടെ കേരളത്തിൽ ഉള്ള സാധനങ്ങൾക്ക് വില കൂട്ടൽ അതിന്ന് അതിന് അതിന്റെതായ രീതിയിലുള്ള വില നൽകി മനുഷ്യരെ എത്ര മാത്രം ഉന്നതത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കണം സഹായിക്കണം എന്നുള്ളതാണ് ഒത്തിരി ഏറെ കഷ്ടപ്പെട്ട് ഒത്തിരി ഏറെ ദുരിതമെന്ന് വെച്ച് ഒത്തിരി ഏറെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇടുക്കീക്കാരായ ഞങ്ങൾ ആരും എല്ലാ മനുഷ്യരും അത് ഞാൻ പിന്നെ കാര്ഷീക ഉൽപ്പന്നങ്ങൾ വിപണികളിൽ എല്ലാം എല്ലാം വിപണികളിലും വിപണികൾ കൂട്ടി വിപണികളിലെക്കൂടെ എടുക്കുവാനുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്ത് ചെയ്യണം കർഷകരെ ഒത്തിരി ഏറെ സഹായിക്കാനായിട്ട് മാനം ഏതോ സംഘടനകൾ കാണാൻ സാധിക്കയുള്ളു അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞം ഞങ്ങൾക്ക് ഒത്തിരി ഏറെ ബുദ്ധിമുട്ടേണ്ടി വരുകില്ല ഇപ്പോൾ ഒരു സാധനത്തിനും വില ഇല്ലാതെ മനുഷ്യർ ഒത്തിരി ഏറെ കഷ്ടപ്പെടുകയാണ് ഉള്ള സാധനം നടതും ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഒരു സാധനങ്ങൾ നിലവിൽ ഇപ്പോൾ ഇല്ല അത് ഉണ്ട ഇല്ലാത്ത അവസ്ഥയിൽ ഉള്ളതിന് പോലും നല്ല വില നൽകാതെ പുറത്തെന്ന് കയറ്റുമതി ചെയ്ത് വരുവാന്നാണ് എല്ലാവരും പറയുന്നത് പുറത്തെന്ന് കയറ്റുമതി ചെയ്ത് തരുന്ന സാധനം സാധനങ്ങളെ നിർത്തിക്കൊണ്ട് ഈ രാ ഈ നാട്ടിലെ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് പോകുവാനായിട്ടുള്ള എല്ലാ ഇതും നൽകണം പുറം രാജ്യങ്ങളിലേക്കാണേലും നമ്മുടെ ഒക്കെ കാർച്ചിക ഉൽപ്പന്നങ്ങൾ കയറി പോകാനായിട്ട് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിളവെടുക്കുവാനായിട്ട് നല്ല സഹായങ്ങൾ ചെയ്ത് തരുവാനായിട്ട് എല്ലാവരും അതിനോട് യോജിച്ചു കൊണ്ട് അതിനെ തൃപ്ത്തിപ്പെടുത്താൻ തക്ക വിധം അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണം എങ്കിൽ മാത്രമാണ് കാർഷിക വിളകളും നല്ല രീതിയിൽ അതിന് വേണ്ട വളങ്ങളും അതിന് വേണ്ട ജൈവ വളങ്ങൾ ആണേലും അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കാർഷിക ഉല്പ്പന്നങ്ങള്ക്ക് നല്ല വില നൽകി ഞങ്ങളെ ഒത്തിരി ഏറെ മുന്നോട്ട് നയിക്കണം എങ്കിൽ അതിന് നല്ല വിലകൾ നൽകണം എങ്കിൽ മാത്രമാണത് പിന്നീട് അടുത്ത വർഷം ആണേലും ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് വിലയില്ല എങ്കിൽ പിന്നെ കൃഷിയോടും എല്ലാവർക്കും മടുപ്പാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് വില കിട്ടാതെ നമ്മൾ അതിനേത് അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കും നമുക്ക് ചെയ്ത് ഇനി നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൊടുക്കുന്ന കൂലിക്കുള്ള പ്രതിഫലം കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് ചെയ്യുന്നതിന് നമുക്ക് അതിനോട് ഒരു മടുപ്പ് തോന്നുവാണ് ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തക്കതായി കൂലിയില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നുവാണ് ആ കൃഷിയോട് തന്നെ നമുക്ക് മടുപ്പാണ് എന്തിന് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വിലയില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിനെ അത് ചേരുന്ന് എന്നുള്ളതാണ് എല്ലാവരുടേം ധാരണ നമ്മൾ പിന്നെ എന്നാത്തിനാണ് ഈ കൃഷി ഒക്കെ ചെയ്യുന്നത് എല്ലാവരും മറ്റു മറ്റ് എന്തേലും പണികൾ ഒക്കെ ചെയ്ത് ജീവിക്കാം എന്നുള്ള വിചാരത്തിലാണ് ഇപ്പോൾ കൃഷിയെ എല്ലാവർക്കും മടുപ്പായി തോന്നിട്ടുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിറ്റഴിക്കുമ്പം അതിന് വിലയില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കൃഷി ചെയ്യുന്നത് എന്നാണ് ത്ത തോന്നലുകൾ എല്ലാം മനുഷ്യർക്കും വന്നിട്ടുണ്ടായത് ഇപ്പം മഴ ഇല്ലാതെ വെയിലായിട്ടും വാടിക്കരിഞ്ഞും വെള്ളം ഒഴിച്ചും എല്ലാം നന്നാക്കി കയറ്റി കൊണ്ട് വന്നിട്ടോ പിന്നീട് അതിന് വില ഇല്ലാതെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും